ആ എന്തായിരുന്നു വേണ്ടത്

ആണോ ചേച്ചി എത്ര രൂപേൻ്റെ എന്ത് ഫോണാണ് ഉദ്ദേശിക്കുന്നത് വാങ്ങാന് ഐ ഫോൺ ആണോ ചേച്ചി ഐ ഫോൺ ആ ഒരു റേഞ്ചിലുള്ള ഫോൺ മതിയോ റെഡ്മി ഉണ്ട് വിവോ ഉണ്ട് ഐ ഫോണിന്റെ തന്നെ നല്ല മോഡൽ ഉണ്ട് വിവോ ആണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടായിരം പന്ത്രണ്ട് അഞ്ഞൂറിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഫോൺ ആണ് നല്ല ക്ലാരിറ്റി ഉണ്ട് ഫോണിന് മറ്റേ ഫോട്ടോ ഒക്കെ എടുക്കാനെ നല്ല ക്ളാരിറ്റി ഒക്കെയുണ്ട് ചേച്ചി വൺ മന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒക്കെയുള്ള ഫോൺ മതി എന്നാണോ ആഗ്രഹിക്കുന്നത് അതെ അപ്പം പിന്നെ ഇത് നല്ലതാണ് എടുക്കാൻ നല്ല ഒരു ഫോൺ ആണ് കേട്ടോ

പിന്നെ വേറെയും ഫോൺ ഉണ്ട് കേട്ടോ റെഡ്മിറ്റെ തന്നെ കുറെ വിവോൻ്റെ തന്നെ എ ഫിഫ്റ്റീൻ ഉണ്ട് അതിൻ്റെ തന്നെ കുറെ ഇതുണ്ട് അപ്പം എങ്ങനത്തെ ക്ളാരിറ്റിൻ്റെ കാര്യം ഒക്കെ എങ്ങനെ ആണ് എന്താണ് ഉദ്ദേശിക്കുന്നത് നല്ല ക്ലാരിറ്റി ഉണ്ട് വിവോൻ്റെ എ ട്വൽവ് എടുത്ത് നോക്കി നോക്ക് നല്ല ക്ളാരിറ്റിയാണ് ആ ഫോട്ടോ കണ്ടോ സൂപ്പർ ആയിട്ട് ഫോട്ടോയില് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും എന്നറിയുമോ നല്ല ക്ളാരിറ്റിയാണ് പിന്നെ സ്പേസും ഉണ്ടല്ലോ നമുക്ക് ഇന്നേതെങ്കിലും ഫോൺ നോക്കുന്നുണ്ടോ സെക്കൻഡ് ഹാൻഡ് ഉണ്ട് ചേച്ചി റെഡ്മിക്ക് സെക്കൻഡ് ഹാൻഡ് ഉണ്ട് സെക്കൻഡ് ഹാൻഡ് ഐ ഫോൺ ഉണ്ട്

ഫസ്റ്റ് തന്നെ മതിയോ എന്നാൽ പിന്നെ റെഡ്മിൻ്റെ എടുത്ത് നോക്കിക്കോ ഓപ്പോ ഉണ്ട് ഓപ്പോ നല്ലതാണ് അപ്പോൾ പിന്നെ ഓപ്പോയൊക്കെ എടുക്കുവാണെങ്കില് നല്ലതായിരിക്കും ചേച്ചി ഒരു കാര്യം ചെയ്യ് ഇന്ന് എടുക്കുന്നുണ്ടോ ചേച്ചി ഓക്കേ എന്നാൽ പിന്നെ നാളെ വന്ന് എടുത്താൽ മതി ശരി ചേച്ചി അ ആയിക്കോട്ടെ ചേച്ചി വരണം